ഏറ്റവും വലിയ നേട്ടം എന്നു പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും വിജയങ്ങളിലേയ്ക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം എന്നുപറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ് ഏറ്റവും അഭിമാനം തോന്നുന്ന നേട്ടം എന്നുപറയുന്നത് ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു എന്താ പറയുക ജോലിയും കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു നിലയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് മാതാപിതാക്കളോടാണ് ഈ നിലയിൽ എത്തിക്കാൻ അവരാണ് ഏറ്റവും വലിയ കാരണം ആയിട്ടുള്ളത് വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വില മറ്റൊന്നുതന്നെയാണ് നമുക്ക് ജീവിതത്തിൽ എവിടെ ഉയർച്ചയുണ്ടെങ്കിലും വിദ്യാഭ്യാസം വേണം അതുപോലെത്തന്നെ അടിസ്ഥാനമായ ഘടകങ്ങൾ നമുക്ക് എന്താ പറയുക പെരുമാറ്റം അതുപോലെത്തന്നെ ബഹുമാനം റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ് അതുപോലെ നമ്മളുടെ ജോലി തൊഴിൽ എന്നു പറയുന്നത് നമുക്ക് സമൂഹത്തിൽ നൽകുന്ന ഒരു വലിയ വലിയ വില തന്നെയാണ്